അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് ഒൻപത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി മൂന്ന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച്